നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യാ എന്നു പറയുമ്പോൾ നമ്മൾ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൽ വളരെയധികം നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുണ്ട് ഓ എനിക്കിപ്പം വലിയ രീതിയിലൊന്നും ശാസ്ത്രീയ കണ്ടു പിടുത്തങ്ങളെക്കുറിച്ച് അറിയത്തില്ലെങ്കിലും അതൊക്കെയും അതൊക്കെ അറിയാനായിട്ടൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെയുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടു പിടുത്തങ്ങളൊക്കെ നടത്തുന്നതും അതൊക്കെ എങ്ങനെ വിജയകരമായി നമ്മളെങ്ങനെയാണ് പൂർത്തീകരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയും അറിയാനൊക്കെ ആഗ്രഹമുണ്ട് അതേക്കുറിച്ച് ഞാൻ പുസ്തകങ്ങളിലൊക്കെ വായിച്ചും അല്ലാതെയൊക്കെ നമ്മൾ ഓരോ ന്യൂസിനകത്തുമെല്ലാം കണ്ടു മനസ്സിലാക്കി ഒരുവിധം എല്ലാ ആശയങ്ങളും നമുക്ക് അതിലൂടെ കിട്ടാനും സാദ്ധ്യതയുണ്ട്